ഇരുപത്തിയെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് മുപ്പത്തിയൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല്